ഹലോ അതേ അതെ പറഞ്ഞോളൂ അല്ല അല്ല പറഞ്ഞോളൂ എന്താണ് ഇപ്പഴൊക്കെ എക്സാമൊക്കെ നടക്കുകയല്ലേ നാല് ദിവസത്തെ ലീവൊക്കെ തരണമെങ്കിൽ ഇച്ചിരി പാടാണ് ആ അവൻ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി ഉഴപ്പാണെന്ന് പറയുന്നത് കേട്ടു ക്ലാസ് ടീച്ചറ് അപ്പം ആ ഇത് ഇപ്പം എത്ര ദിവസത്തെ ആ ഇപ്പം ഇത്രയും ദിവസം ലീവ് എടുത്താൽ പിന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എക്സാമിനൊക്കെ നോട്ട്സൊക്കെ നോട്ട്സ് ഓ എന്നത്തേ ഓക്കേ ഞാൻ ഹലോ സ്കൂളിലോട്ട് വന്നു ടീച്ചറിനെ ഒന്ന് കണ്ടിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുക ആ നാളെ വന്നിട്ട് നാളെ വന്നിട്ട് ഒന്നു കണ്ട് സംസാരിച്ചിട്ട് ലീവ് തരാം ലീവ്ലെറ്ററും കൂടെ കൊണ്ട് വരണം കേട്ടോ

വരണം വരണം സ്കൂളിൽ ഒന്നു കൂടെ വന്നു അല്ലെങ്കിൽ ലീവ് ലെറ്റെർ എല്ലാം കൊടുത്ത് വിട്ട് ഒപ്പിട്ട് കൊച്ചിൻ്റെ കൈയിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തു വിടുക എന്താണ് കാരണമെന്ന് വച്ചാൽ അതും കൂടെ ലെറ്ററിൽ എഴുതിക്കൊണ്ട് വരേണ്ടയാണ് എത്ര ദിവസം നാല് ദിവസമെന്നുള്ളത് അതെ കറക്റ്റ് ആയിട്ട് എഴുതി ഒപ്പിട്ട് എനിക്ക് ഒന്ന് കാണിച്ചു തരേണ്ടതാണ് ആ നാളെ ഒരു ഉച്ചയാവുമ്പഴത്തേക്കും വന്നു ഒന്ന് കാണുക ക്ലാസ് ടീച്ചറിനേയും എന്നെയും കൂടെ ഒന്ന് കണ്ടിട്ട് ഓക്കെ ആണ് ടൂറ് കഴിഞ്ഞു വന്നിട്ട് നോട്ട്സൊക്കെ കറക്റ്റായിട്ട് എഴുതി എന്നെ കാണിച്ചിരിക്കേണ്ടതാണ് കേട്ടോ എവിടെയാണ് പോവുന്നത് ആ എത്രയും പെട്ടെന്ന് നോട്ട് എഴുതി കാണിക്കണം ഒരുപാട് ലേറ്റ് ആവരുത് എക്സാം വരികയാണ് ഓക്കേ ഓക്കെ താങ്ക് യു